കൽപ്പറ്റ ഇമേജിൽ നിന്ന് ഞാൻ ഒരു മൊബൈൽ ഫോൺ എടുത്തു വിവോ വൈ ഫിഫ്റ്റീൻ ടോപ് ഫോണാണ് കണ്ടവരെല്ലാം നല്ല അഭിപ്രായമാണ് ക്യാമറ ക്വാളിറ്റി ആണെങ്കിലും സൂപ്പറാണ് അതുപോലെതന്നെ കയ്യിൽ യൂസ് ചെയ്യാൻ ആണെങ്കിലും നല്ല നല്ലൊരു പ്രോഡക്ട് ആണ് കാരണം മറ്റുള്ളവർക്കാണെങ്കിലും ഒരു ഇമ്പ്രെസ്സ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഫോണാണ് ക്യാമറയും ക്വാളിറ്റിയും എന്താ പറയുക പെട്ടന്ന് സ്ക്രീൻ ലോക്ക് ആകുന്നു അതുപോലെത്തന്നെ ഡിസ്പ്ലേ കംപ്ലൈൻറ്റ് ഒന്നും വരുന്നില്ല അങ്ങനെ നല്ല രീതിയിലുള്ള പ്രോഡക്ടാണ് മറ്റേ മൊബൈൽ ഫോൺ